തയ്യൽ തയ്യൽ ന്ന് തുന്നൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കാണ് എല്ലാ രീതിയിലുള്ള വർക്കും ചെയ്യും പിന്നെ ഡിസൈൻ വർക്ക് ഡിസൈൻ വർക്കുണ്ട് പിന്നെ സ്റ്റിച്ചിങ് കുട്ടികളുടെ ഡ്രസ്സ് പിന്നെ ലഹങ്ക അതുപോലത്തെയുള്ള എല്ലാ വസ്ത്രങ്ങളുടെ വർക്കുകളാണ് ചെയ്യുന്നത് പിന്നെ വർക്ക് പലതരം വർക്കുകളും ചെയ്യലുണ്ട് അതിൽ സ്റ്റിച്ചിംങ്ങും ഉണ്ട് സ്റ്റിച്ചിങ് ചെയ്യുന്നത് കല്യാണ വർക്ക് എടുക്കുന്നുണ്ട് കല്യാണ വർക്കിൽ എംബ്രോയിഡറി മിഷ്യനിൽ വർക്ക് ചെയ്യുന്നുണ്ട് മിഷ്യനിൽ വർക്കിൽ അത് അതിവിദഗ്ധമായി എല്ലാതരം ഡിസൈനിങ്ങിലും ചെയ്യും നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ടെങ്കിൽ അതത്ര നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലാണ് ചെയ്യുന്നത് അത് എത്ര ഹെവി മോഡലാണെങ്കിലും നമ്മൾ മിഷ്യൻ വർക്കാണെങ്കിൽ അതേറ്റെടുത്ത് നമുക്കത് ഭംഗിയായി ചെയ്തുകൊടുക്കാൻ വേണ്ടി പറ്റലുണ്ട് ഏറ്റം ബുദ്ധിമുട്ടായ വർക്ക് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ് നെറ്റ് ന് നെറ്റ് നെറ്റ് പോലെയുള്ള തുണികളിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടിയ വർക്ക് അത് അത് സൂക്ഷ്മമായി മെല്ലെ ചെയ്യേണ്ട വർക്കാണ് അത് അല്ലെങ്കിൽ നെറ്റ് പൊട്ടിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാനും ബുദ്ധിമുട്ടാണ് അപ്പം അത് കഴിയുന്നതും നമ്മൾ അടിയിൽ ചെറിയ ക്യാ പേപ്പർ അതായത് എടുക്കാൻ പറ്റാത്ത ബട്ടർ പേപ്പർ വെച്ച് ചെയ്യും ബട്ടർ പേപ്പർ വെച്ച് ചെയ്ത് ഓരൊരോ ഡിസൈൻ ചെയ്ത് മിഷ്യനിൽ ചെയ്തു കഴിഞ്ഞാൽ ബട്ടർ പേപ്പർ അത് ഇളക്കിയെടുത്ത് അതിനെ നമ്മൾ പേപ്പർ കാണാത്ത രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ സാധാരണ സിൽക്ക് ബ്ലാ ബ്ലൗസാണെങ്കിലും നമ്മൾ അതിനകത്ത് പേപ്പർ പേപ്പർ വെച്ച് ചെയ്ത് അടിയിൽ പേപ്പർ വെച്ച് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ നല്ല നല്ല നല്ല ഫിനിഷിംഗ് കിട്ടും ഫിനിഷിംഗ് കിട്ടും പേപ്പർ വെച്ചു ചെയ്താൽ ഫിനിഷിംഗ് കിട്ടും അതു ലൈനിങ് ലൈനിങ് തുണി ആഡ് ചെയ്യും നേർത്ത ലൈനിങ് തുണി ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയോ നമുക്ക് ഫിനിഷിങ് ചെയ്യാൻ പറ്റും അത്രയും ന ഞങ്ങൾക്ക് ആ ആ തുണി ഫിനിഷിംഗ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തുണി തിരഞ്ഞെടുക്കുന്നതിലും വ്യക്തമായ ധാരണ വേണം എല്ലാ തുണിയും എല്ലാ രീതിയിലും പെട്ടെന്നങ്ങ് ചെയ്യാൻ പറ്റില്ല കുറെ തുണി ക്രോസ് ആയിട്ട് വരുന്ന തുണിയിൽ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിലോ കട്ടിങ് ചെയ്യാനാണെങ്കിലോ അത് വ്യക്തതയോടെ തുണിയുടെ ഇഴ നോക്കി ചെയ്തിട്ടു വേണം എടുക്കാൻ അല്ലെങ്കിൽ പി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് കറക്റ്റാവില്ല ഒരിക്കലും അളവ് സൈസ് മാറിപ്പോകും അപ്പോൾ അതിനും കൂടി ഒരു വ്യക്തത വേണം ഇതുവരെ ചെയ്തതിൽ ബുദ്ധിമുട്ടേറിയ വർക്ക് നെറ്റിൽ ചെയ്തതു തന്നെയായിരുന്നു അത് കല്യാണത്തിൻ്റെ ഷോൾ ചെയ്യുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ള വർക്കാണ് ഷോൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അത് നെറ്റിൽ ചെയ്യുമ്പോൾ അത് നെറ്റ് പൊട്ടാത്ത രീതിയില് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ഏറ്റവും ബുദ്ധിമുട്ടായത് ബുദ്ധി ബുദ്ധിമുട്ടായി കണ്ടിരുന്നത് സാധാരണ ഷിഫോൺ അത്തരം തുണികൾ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ തുണിക്ക് ക് ക്രാക്ക് ക്രാഷ് അതായത് ചെറിയ ചെറിയ വലിവ് അനുഭവപ്പെടും ഞങ്ങൾ ആ യൂസ് ചെയ്യുന്ന സാധനം ഫ്രെയിമിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തുണി വലിച്ച് ടൈറ്റ് ടൈറ്റാകുന്ന സമയത്ത് അതിൻ്റെ ചെറിയൊരു ഇതു വരും എന്നാലും അത് അയൺ ചെയ്ത് നമ്മൾ അത് വ്യക്തമായി ഫില്ലപ്പാക്കിയിട്ട് വേണം ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കും അതായത് ഒരു ഷോൾ ചെയ്യുമ്പോൾ ഒരു ദിവസം മൊത്തം ഞങ്ങൾ ഒരു ഒരു രണ്ട് സൈഡ് ഒന്നര ഒന്നര ദിവസം എടുത്തായിരുന്നു എടുത്തു ഷോളിൽ കുറച്ച് ഒരു ദിവസം ഒന്നര ആ ഒന്നര ദിവസം എടുത്തു മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് അത് സാധാരണ ഒരു സിമ്പിൾ വർക്ക് സിമ്പിൾ വർക്കായിരുന്നു ഹെവി വർക്കായിട്ട് പിന്നെ ചെയ്യാൻ എടുക്കില്ല എടുത്താൽ തന്നെ നമ്മളെക്കൊണ്ട് അത് ഇതാണ് ചെയ്യാൻ അത് പറ്റുമോന്നോ ഇല്ലയോന്ന് പറയാൻ വേണ്ടി പറ്റില്ല എല്ലാ വിദ്യ നമ്മൾ മാക്സിമം നമുക്ക് ഒരു തുണി കയ്യിൽ കിട്ടിയാൽ തന്നെ നമ്മൾ വ്യക്തമായിട്ട് നോക്കും എങ്ങനെ ഇത് ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണമെന്ന് നോക്കും അപ്പോൾ നമുക്കതിലേറ്റവും എളുപ്പമാകുന്ന രീതിയിലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ആ തുണിയെ തിരഞ്ഞെടുത്ത് ചെയ്യുന്നത് നമ്മ ഞങ്ങൾക്ക് അത് കസ്റ്റമർക്ക് കൊടുത്താൽ അവരിക്കത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന് കൂടി നമ്മൾ നോക്കണം അപ്പം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം മാക്സിമം നമ്മൾ കസ്റ്റമർറോട് തന്നെ ചോദിക്കും നിങ്ങൾക്ക് ഏ ഏത് രീതിയിലാണ് എങ്ങനെയാണ് വേണ്ടതെന്ന് അപ്പം അവർ പറയുന്ന ഇന്ന ഇതാണ് ഇന്ന രീതിയിലാണ് വേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും

അങ്ങനെയാണ് നമ്മൾ ഈ തുന്നലിൻ്റെ എല്ലാ ഈ വസ്ത്രങ്ങൾക്കും ചിലവഴി ചിലവഴിക്കുന്നത് ചിലവഴിക്കുന്നത് ചില ഇത് ചിലവഴിക്കുന്നത് കാ ഒരു ബ്ലൗ ബ്ലൗസ് തയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ മാക്സിമം ഒരു മണിക്കൂർ മാക്സിമം എടുക്കേണ്ടി വരും തയ്ക്കുന്ന നമ്മൾ മുറിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുമ്പോൾ അതിന് അവര് മുക്കാൽ മണിക്കൂർ എടുക്കും അത് കട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അവർ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അവർ വ്യക്തമായത് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റ് വർക്ക് ചെയ്തിട്ട് കാണിക്കും അത് കണക്ക് ഏറ്റവും സൂക്ഷ്മമായിട്ട് ചെയ്യണേ എന്ന് എംബ്രോയിഡറി വർക്ക് എംബ്രോയിഡറി വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളത് വ്യക്തമായ ഒരു പേപ്പറിൽ ആദ്യം വരച്ച് ഏതാ ഡിസൈൻ വേണ്ടതെന്ന് വെച്ചാൽ വരച്ച് അതിപ്പം തുണിയിലേക്ക് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യും ആഡ് ചെയ്തതിനു ശേഷം തുണിയിൽ പ്രിൻറ്റ് പ്രിൻറ്റ് യ്യും പ്രിൻറ്റ് പ്രി തുണിയിലേക്ക് പ്രിൻറ്റ് ചെയ്ത ശേഷം ഫ്രെയിമിൽ ഇട്ട് ട ടൈറ്റെടുത്ത് നാല് വശത്തും ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മെഷ്യനിലേക്ക് ഇതാക്കുന്നത് പിന്നെ തുണിക്ക് ഏതാണ് സാരിയുടെ കളർ നോക്കി നോക്കി അത് എംബ്രോയ്ഡറി വർക്ക് ചെയ്യും സാരിയുടെ കളർ വ്യക്തമായി ആ ബ്ലൗസിൻ്റെ മേലെ പതിയുമ്പോഴാണ് ആ പിന്നെ ആ വർക്കിന് എത്രത്തോളം ഭംഗി വരുന്നുവെന്ന് നമ്മളറിയുന്നത് അറിയുന്നത് നമുക്ക് കസ്റ്റമർക്ക് അത് എങ്ങനെ നമുക്ക് വൃത്തി കൊടുക്കാൻ പറ്റും ആ രീതിയിൽ നമുക്കത് ചെയ്യാൻ വേണ്ടി ഇതുവരെ പറ്റും അതുപോലെ ലഹങ്കയാണെങ്കിലും മറ്റ് തുണികളാണെങ്കിലും ചുരിദാറാണെങ്കിലും ചുരിദാറിനാണെങ്കിലും അവർ പാൻറ്റിൻ്റെ ഏത് കളർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിന് നമ്മൾ ആഡ് ചെയ്തു കൊടുക്കണം അത് ഏത് രീതിയിലാണോ ഒരു പ്ലെയിൻ തുണിക്ക് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അവർ കസ്റ്റമർ പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് ആ ഒരു സൈ ഒരു സൈഡിലോ അല്ലാ റൗണ്ടിലോ എവിടെയാ ഡിസൈൻ വേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് അത് വരച്ചു ആദ്യം വരക്കും വരച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് ഫ്രെയിം ടൈറ്റായി വെച്ച് പിന്നെ ഏതാ കളർ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് കളറിട്ടു കൊടുക്കും എന്നിട്ടാ മിഷൻ പ്രവർത്തിച്ച് നമ്മൾ തന്നെ അത് വർക്ക് ചെയ്തിട്ട് എടുക്കും അത് കണക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് വർക്കാണെങ്കിൽ വേണ്ടത് അത് കളറിന് ഏതാ ഒരു കല്യാണ ബ്ലൗസിന് വേണ്ടത് ആൻറ്റിക്കാണെങ്കിൽ ആൻറ്റിക്ക് ഗോൾഡാണെങ്കിൽ ഗോൾഡ് ഏതാണ് അല്ലാണ്ട് ഷുഗർ ബീഡ്സ് ആണെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ആൻറ്റിക്ക് വ്യക്തമായിട്ട് ചെയ്തു കൊടുക്കും അതിനൊന്നും ഒരു നമ്മ കസ്റ്റമർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അത് വ്യക്തമായിട്ട് ചെയ്തു കൊടുക്കും കസ്റ്റമർ ഒരു ഡിസൈൻ അടിച്ചു കൊടുത്താൽ അത് എത്രയും ഭംഗിയിൽ ചെയ്തു കൊടുക്കുന്നോ അത്രയും ഇതാണ് നമുക്ക് അതിൽനിന്ന് കിട്ടുന്നത് ഇതുവരെ അതുപോലെ ബ്ലൗസിനാണെങ്കിലും ബാക്കിൽ നെറ്റ് വെച്ച് ചെയ്തിട്ട് ബാക്കിൽ വർക്ക് ചെയ്യുമ്പോഴാന്ന് അത് കുറേക്കൂടി പ്രയാസം ഉണ്ടാകുന്നത് ബ്ലൗസിന് ഒരു ബാക്കിലാണെങ്കിൽ ബാക്കിൽ കറക്റ്റ് ആ നെറ്റ് വെച്ച് അതിലേക്ക് നമ്മൾ ഡിസൈൻ വരച്ച് അതിലേക്ക് വ്യക്തമായിട്ട് വളരെ സൂക്ഷ്മതയോടു കൂടി വേണം ഓരോ വർക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ പിന്നെ ഈ വലിയ ലഹങ്ക ലഹങ്കയും അതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കൊന്നു ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണമെന്നു പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും വലിയ ബ്ല ഡ്രസ്സ് നമ്മുടെ ചെറിയ മിഷനിൽ നമുക്കൊതുങ്ങുന്നതല്ല വലിയ മിഷ്യനാണെങ്കിൽ നമുക്കത് ചെയ്യാൻ വേണ്ടി പോയിട്ട് അത് കമ്പ്യൂട്ടർ മെഷീനിൽ ചെയ്യുന്ന കൂടുതൽ വർക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യക്തത അതിൽ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റൂ സാധാരണ ചെറിയൊരു മാനുവൽ മെഷീനിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ സാധനമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ കമ്പ്യൂട്ടർ മിഷ്യനിലാണെങ്കിൽ നമ്മൾക്ക് എം വലിയ വലിയ എംബ്ലങ്ങളോ ഓഫീസ് വർക്കോ അതുപോലത്തെ സാധനങ്ങളെല്ലാം അതിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് മോഡി പിടിക്കാൻ വേണ്ടി പറ്റും നമുക്ക് എ എങ്ങനെയൊക്കെ ഒരു ഡ്രസ്സിനെ ഭംഗിയാക്കാം ഏതെല്ലാം വിദ്യകൾ ഉപയോഗിച്ച് നമുക്കതിനെ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അത്രത്തോളം ഞങ്ങൾ ഭംഗിയാക്കി കസ്റ്റമറെ പ്രീതിപ്പെടുത്തും അതാണ് നമ്മൾ തയ്യലിൽ ചെയ്യുന്ന ഏറ്റവും നല്ല നല്ല ഒരിത് അതായത് ഒരു ഒരു കസ്റ്റമർ നമുക്ക് ഒരു പ്രാവശ്യം അത് യൂസ് ചെയ്താൽ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അവർ പുറത്തു പോകാണ്ട് തിരിച്ചു വരണം അത് നമ്മൾ മാക്സിമം അവരെ ഒഴിവാക്കാണ്ട് നോക്കും അതാണ് നമ്മൾ തയ് തയ്യൽ തൊഴൽ തൊഴിലിൽ ഇത്രയും ഇത് കാണിക്കുന്നത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും എല്ലാ കസ്റ്റമർക്കും നന്നായി ചെയ്തു അപ്പം ഇനിയും അതുപോലെ പുതിയ പുതിയ വർക്കുകൾ നല്ല രീതിയിൽ ചെയ്യണം ചെയ്യണം അത് പുതിയ പുതിയ വിദ്യകളും പുതിയ പുതിയ ഇതും നമ്മൾ സെർച്ച് ചെയ്തെടുത്ത് നമ്മൾ നമ്മളിലൂടെ പുതിയ കഴിവുകൾ ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ അതിലേക്ക് ചെയ്യേണ്ടത് എന്ന് അങ്ങനെയാണ് നല്ലത് എല്ലാ വിധ ഏതുതരം വിദ്യകളും ഉപയോഗിച്ച് പറ്റുന്ന രീതിയിൽ അതുപോലെ ചെയ്യുന്നതായിരിക്കും പ്രത്യേകിച്ച് നല്ലത്